ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട വിനോദ പരിപാടികൾ എന്ന് വച്ചാൽ കൂട്ടുകാരുമായി സമയം ചെലവാക്കുന്നതാണ് നമ്മളോരോ കാര്യത്തിന് അവരുടെ ഒപ്പം പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ഇതാക്കുകയും ചെയ്യും കൂട്ടുകാരുമായി ഫുട്ബോൾ കളിക്കാനും കൂട്ടുകാരായി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും കൂട്ടുകാരുമായിട്ട് ട്രിപ്പ് പോകുന്നതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന വിനോദ പരിപാടികൾ കൂട്ടുകാരുമായി പോവുമ്പോൾ നമ്മൾ ഓരോ പരിപാടികളും ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സന്തോഷകരമായ കാര്യങ്ങളറിയാനും ചെയ്യാനും കഴിയും അവർ നമ്മളെ ഓരോ കാര്യത്തിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് തരും പ്രധാനപ്പെട്ട വിനോദ പരിപാടികളിൽ പെടുക ഫുട്ബോളും ക്രിക്കറ്റും തന്നെയാകും പിന്നെ അതിൻ്റെ ഒപ്പം യാത്രകൾ പോകുന്നതും യാത്രകൾ പോവുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുകയും ചെയ്യും കൂട്ടുകാരുമൊത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അറിവുകൾ നേടും നമ്മൾ ഇതൊക്കെ നമ്മടെ ജീവിതത്തിൽ സഹായിക്കും നമ്മക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായി ഈ യാത്രകൾ മാറുകയും ചെയ്യും നമ്മളോരോ പരിപാടിക്ക് കൂട്ടുകാരൊപ്പം പോകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത് പിന്നെ നമ്മൾക്കെന്താവശ്യം വന്നാലും നമ്മടൊപ്പം വരും എന്നറിയുന്ന കൂട്ടുകാരൻ നമ്മുടൊപ്പം ഇണ്ടെങ്കിൽ നമുക്ക് എവിടെ പോകുമ്പളും ഒരു സമാധാനം ഉണ്ടാവും നമ്മൾ ഓരോ യാത്രയ്ക്ക് അവരൊപ്പം പോകുമ്പം സന്തോഷകരമായി അത് മാറും നമ്മളെ അവര് ചിരിപ്പിക്കും കളിപ്പിക്കും കളിയാക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദപ്പരിപാടി പിന്നെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോളും ഫുട്ബോള് കളിക്കുമ്പോളും അവര് നമ്മളെ കളിയാക്കുകയും ചിരിപ്പിക്കയും ഒക്കെ ചെയ്യും കൂട്ടുകാരുമായി മീൻ പിടിക്കാൻ പോവുക കൂട്ടുകാരുമായി സൈക്കിൾ ഓടിച്ചു പോവുക കൂട്ടുകാരുമായി ബൈക്ക് ഓടിച്ചു പോവുക ഇതൊക്കെയാണ് ഇവിടുത്തെ വിനോദ പരിപാടികൾ കൂട്ടുകാരുമായിട്ട് നമ്മൾ സിനിമയ്ക്ക് പോട്ടെ എന്തു പോട്ടെ അവരൊപ്പം പോകുമ്പോൾ നമുക്ക് ഹാസ്യവും നർമ്മവും കൽപ്പിച്ച യാത്രകളാവും അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലാന്നറിഞ്ഞാലും അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ സന്തോഷവും സമാധാനവും നല്ലതാണ് നമ്മളോരോ പരിപാടികൾക്ക് പോകട്ടെ അവര് നമ്മുടെ കൂടെയുണ്ടാവും എന്ത് ചെയ്യാനും എപ്പോൾ ചെയ്യാനും അവര് ഒക്കേത്തിനും കൂടേ ഉണ്ടാകും നമ്മളുടെ യാത്രകൾ ആശയപരവും നറപ്പിക്കാൻ അവര് സ സഹായിക്കും പിന്നെ എപ്പോളും അവര് നമ്മുടെ ഒപ്പം ഉണ്ടാകും നമ്മുടെ കാര്യം ചെയ്യാനും എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നവര് പറഞ്ഞ് തരികയും ചെയ്യും നമ്മുടെ യാത്രകൾ സന്തോഷമാക്കാൻ അവർ നന്നായി സഹായിക്കും നമ്മൾ പോകുന്ന വഴികൾ എങ്ങനെയാണ് എന്ത് നിറഞ്ഞതാണ് എന്നവര് പറഞ്ഞ് തരും പിന്നെ കൂട്ടുകാരുമായിട്ട് മീൻ പിടിക്കാൻ പോവുക ഫുട്ബോൾ കളിക്കുമ്പോൾ അവരെ ടാക്കിൽ ചെയ്യുക അവരെ തള്ളിയിടുക മറിച്ചിടുക ഇതൊക്കെയാണ് ഇവിടുത്തെ വിനോദ പരിപാടികൾ കൂട്ടുകാരുമായി സിനിമയ്ക്ക് പോകുമ്പോൾ അവരൊപ്പം പോപ്കോണും ഇതൊക്കെ ഇരുന്ന് കഴിക്കാനും നല്ല രസമാണ് ഓരോ കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണ്ടത് ഇതൊക്കെ അവര് പറഞ്ഞു തരും ഇങ്ങനത്തെ കാര്യത്തിൽ കൂട്ടുകാരുമായിട്ട് പോകുന്നതാണ് ഇവിടുത്തെ വിനോദ പരിപാടി പിന്നെ മലമുകളിൽ പോയി കാണുക ഇതൊക്കെ ഒരു രസമായി മാറും കൂട്ടുകാരുമായി ദൂരെ യാത്രയ്ക്ക് പോകുന്നതൊരു നല്ല കാര്യമാണ് നമ്മുടെ ജീവിതത്തില് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണിച്ച് തരും നമ്മളോരോ പ്രശ്നത്തിന് പരിഹാരം അവര് ഇണ്ടാക്കി തരുകയും ചെയ്യും നമ്മൾ എങ്ങോട്ടെക്കൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണമെന്ന് അവര് പറഞ്ഞ് തരും കൂട്ടുകാരുമായി ഒരു മരച്ചുവട്ടിൽ ഇരുന്നാൽ തന്നെ അതൊരു വിനോദ പരിപാടിയാണ് അവര് നമ്മളെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യും നമ്മൾ പോകുന്ന ഓരോ പരിപാടികളും വിനോദകരമാക്കി മാറ്റുകയും ചെയ്യും പിന്നെ കൂട്ടുകാരുമായി പാർട്ടിക്ക് പോവുക ട്രിപ്പ് പോവുക ഇതൊക്കെ ഒരു ഹാസ്യകരമായ പരിപാടികളാണ് കൂട്ടുകാരുമായി ചെയ്യുന്നതൊക്കെ നമ്മൾക്ക് വിനോദവും സന്തോഷവും എല്ലാം ഉണ്ടാക്കിത്തരും നമ്മൾ പോവുമ്പോൾ നമ്മുടെ കൂടെ വരും അവര് പോകുമ്പഴും നമ്മള് അവരുടെ കൂടെ പോവും ഇതാണ് കൂട്ടുകാരുടൊപ്പം പോകുന്നതിൻ്റെ നല്ല കാര്യങ്ങൾ കൂട്ടുകാരാണ് നമ്മളുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് തരികയും എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന ആൾക്കാര് അവരില്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വിനോദം കുറയും പിന്നെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ട്രിപ്പ് പോകാൻ നമുക്ക് ഇപ്പം തോന്നില്ല കൂട്ടുകാർ ഉണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഒരു രസം തോന്നുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അവര് പറഞ്ഞ് തരും നമ്മളുടെ യാത്ര പോകലാവട്ടെ എന്തും ചെയ്യട്ടെ അവര് നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാ മ്പോളും നല്ല സന്തോഷം വരുന്ന യാത്രകളാവട്ടെ എന്ന് നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ഓരോ പരിപാടിക്ക് പോവുമ്പോൾ അവരൊന്ന് നമ്മളെ എങ്ങനെയൊക്കെ എന്തൊക്കെയെന്ന് അവര് കാണിച്ചു തരികയും ചെയ്യും നമ്മുടെ സിനിമയ്ക്ക് പോവുമ്പോൾ സിനിമയുടെ കഥ പറഞ്ഞ് തന്ന് നമ്മളെ പറ്റിക്കുകയും ഒക്കെ അവര് ചെയ്യും